എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് പിന്നെ പാചകത്തിലോട്ട് വരുന്നൊരു കാലഘട്ടം അറിയില്ല എങ്ങനെ എന്ത് ചെയ്യണം എന്നറിയില്ല നാലഞ്ച് വർഷം മുമ്പാണ് ചോറ് കുക്കറിൽ വച്ചു വിസിൽ കളയണം എന്നറിയില്ല വിസിൽ വന്നാൽ അത് ഓഫാക്കണം എന്നറിയാം രണ്ട് വിസിൽ വന്നു ഓഫാക്കി എന്നിട്ട് കുറച്ചുനേരം വിസിൽ കളഞ്ഞു അതു കഴിഞ്ഞിട്ടെനിക്ക് തുറന്ന് നോക്കണം ഒത്തിരി നേരം വച്ചാൽ അത് വെന്ത് പോകുമല്ലോയെന്നോർത്ത് തുറന്ന് നോക്കണം എന്താ അവസ്ഥ എന്നറിയാൻ അപ്പം അതിൻ്റെ വിസിൽ കളയാതെ കഷ്ടപ്പെട്ട് നല്ല സകല പ്രഷറും എടുത്ത് അതങ്ങ് തുറന്നു അതിൻ്റെ മൂടി തുറന്നു അപ്പം അതിലുണ്ടായിരുന്ന ചോറ് മുഴുവൻ മേലോട്ട് എന്ത് ഫോഴ്സിലാണെന്നറിയില്ല മുഴുവൻ മേലോട്ട് ആയി